ചേട്ടാ നമസ്കാരം ഞാനേ മറ്റെ രാജേഷാണ് മനസ്സിലായോ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഒക്കെ വണ്ടി വിളിച്ചാൽ വരുമോയെന്ന് അറിയാൻ വേണ്ടീട്ടാ ഞാൻ ചിലപ്പോൾ അടുത്താഴ്ച എനിക്കൊരു ട്രിപ്പുണ്ട് അപ്പോൾ തിരിച്ച് ട്രിപ്പ് പറഞ്ഞാൽ കമ്പനി ട്രിപ്പാണ് അപ്പോൾ അതിൻ്റെ രാത്രി ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടേ ഞാൻ തിരിച്ച് റെയിൽ വേ സ്റ്റേഷനിലെത്തുള്ളൂ അപ്പോൾ എന്നെ അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ പിക്ക് ചെയ്തിട്ട് എന്നിട്ട് വീട്ടിലെത്തിക്കണം ഇപ്പോൾ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ ഇപ്പോൾ അഥവാ ട്രെയിൻ ലെയിറ്റാവുമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആ നേരത്ത് എനിക്ക് വണ്ടി കിട്ടുമോയെന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇപ്പോൾ ഇവിടെയാവുമ്പോൾ ചേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാവരേയും അറിയാൻ പറ്റുംമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്ന് വിളിച്ചു നോക്കിയതാണ് ചേട്ടനാവുമ്പോൾ ഇപ്പോൾ രാത്രി ഓട്ടോ എടുക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ അവിടെയൊന്ന് കൊണ്ടാക്കി തരാൻ പറ്റുമോ അതിൻ്റെ കാര്യങ്ങള് എത്രയാണ് ഇനി രാത്രി പൈസ കൂടുതലുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്